ഹലോ ഞാൻ ഒരു വയർലെസ് ഹെഡ്ഫോൺ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് നിറം എനിക്ക് അതിൻ്റെ ബ്ലൂ ആണ് വേണ്ടത് സംഗതി അപ്പം നിങ്ങൾ പാക്ക് ചെയ്തിരിക്കുന്നത് അത് ബ്ലൂ ആണോ എന്നുള്ളതും അതിന് ഏതൊക്കെ കളർ അവൈലബിൾ ആണ് ഇനി സപ്പോസ് ബ്ലൂ ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏത് കളർ ആണ് നിങ്ങളുടെ അടുത്ത് അവൈലബിൾ എന്നതിനെ കുറിച്ചൊക്കെ എനിക്കൊരു കാര്യങ്ങൾ ഒന്ന് വാട്ട്സാപ്പിൽ ഇട്ട് തരാമോ കാരണം ആണെങ്കിൽ എനിക്ക് എനിക്ക് ആക്ചലി വേണ്ടത് ബ്ലൂ കളർ ആണ് അത് നിങ്ങൾ സ്ഥിരീകരിക്കുവാൻ വേണ്ട കാര്യങ്ങൾ ഓൺലൈനിൽ കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ വാട്ട്സാപ്പിൽ കൂടി ഇട്ടു തരുമോ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കും